പ്രധാനമന്ത്രിയുടെ പോഷക പദ്ധതി പോഷക ശക്തി പദ്ധതിയെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളിലെ പോഷകാഹാര കുറവിനെ പരിഹരിച്ച് നല്ല ആരോഗ്യവും ഉർജ്ജസ്വലരായിട്ടുള്ള കുട്ടികളെ നമ്മളെ പുതുതലമുറയെ വാർത്തെടുക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്തത്തിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷണ പദ്ധതി എന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുടങ്ങി ഇരുപത്തി ആറു വരെ അഞ്ചു കൊല്ലത്തേക്കാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അതിലൂടെ കുട്ടികളിലെ വിളർച്ച പോലെയുള്ള അങ്ങനെ അങ്ങനെയുള്ള അസുഖങ്ങളായാലും ഇപ്പോൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളിലും എല്ലായിടത്തേക്കും നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ അവർക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനും പോഷകക്കുറവ് നികത്താനും എല്ലാം സഹായിക്കുന്നു വിദ്യാഭ്യാസത്തിനോട് കൂടെത്തന്നെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഒന്നാണ് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അതിന് പല ഇടത്തും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അപ്പം ആ ഒരു കുറവ് നികത്തി